അച്ചടി മാധ്യമങ്ങളായ പത്രം പത്രം പണ്ടു കാലം മുതലേ പത്രത്തിലുള്ള വാര്ത്തകളല്ലെ പണ്ടുള്ള ആള്ക്കാരും ഇപ്പോഴും ഇപ്പോഴാണെങ്കിലും പത്രങ്ങളിലെ എല്ലാ പത്രങ്ങളിലെ എല്ലാ ന്യൂസുകളും വായിക്കുന്ന ആളുകൾ ഇന്നത്തെക്കാലത്തുമുണ്ട് മാസികകളിൽ വരുന്ന ന്യൂസുകളും ന്യൂസുകളല്ല മാസികകൾ വായിക്കുന്ന ആളുകളും ഇന്നത്തെക്കാലത്തു ജീവിച്ചിരിക്കുന്നത് പിന്നതുകൂടാതെ പുതിയ ടെക്നോളജി പ്രകാരം നമ്മൾ സോഷ്യല് മീഡിയയിലുള്ള വാര്ത്താചാനലുകളും നമ്മള്ക്ക് കേൾക്കാനുള്ള സൗകര്യവും മീഡിയ വഴി പല പല കാര്യങ്ങൾ വീഡിയോസ് വഴീ മീഡിയയിൽ ഉള്ള ഗുണമെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പല വാര്ത്താ ചാനലുകളിലെയും ലൈവായിട്ടു നമ്മൾ ഓരോ ശിശു സോഷ്യല് മീഡിയാസിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ടു കാണാനും അതു കണ്ടു മനസ്സിലാക്കാനും ഉള്ള സംവിധാനമുണ്ട് അതാണ് അതു തമ്മിലുള്ള ഈ വാര്ത്താ ചാനലുകളും സോഷ്യല് മീഡിയയും ദൃശ്യമാധ്യമങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം പത്രത്തിലെന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വരുന്ന ന്യൂസുകൾ മാത്രമേ നമുക്ക് പത്രത്തിൽ കാണാൻ പറ്റുള്ളൂ അത് നേരിട്ട് വീഡിയോ പോലെ കാണാനോ വന്ന് കാ എന്തെങ്കിലും കേൾക്കാനോ ഒന്നും നമുക്ക് പത്രത്തിലൂടെ സാധിക്കില്ല വരുന്ന ന്യൂസുകൾ വായിക്കുക അതാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ മെ കൂടുതൽ വിശ്വാസമെന്നു പറയുന്ന നമ്മൾ പത്രത്തിൽ വായിക്കുന്ന ന്യൂസുകൾ എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം കണ്ഫോം ചെയ്തു വരുന്നതാണല്ലോ പിറ്റേ ദിവസം പത്രത്തിലവർ അച്ചടിച്ചു വരുന്നത് മാസികകളിലാണെങ്കിലും നമ്മൾ പല പല ചെറിയ ചെറിയ സ്റ്റോറീസും മറ്റുള്ള കാര്യങ്ങളിലും ആണ് മാസികകളിൽ വായിക്കുന്നത് അപ്പോൾ തമ്മിൽ എപ്പോഴും വിശ്വാസമുള്ളത് നമ്മൾ പേപ്പറുകളിൽ കാണുന്ന പേപ്പറിൽ നമ്മൾ അച്ചടിച്ചു വരുന്നതായിരിക്കും നമുക്കേറ്റവും കൂടുതൽ വിശ്വാസം സോഷ്യല് മീഡിയയിൽ വിശ്വാസമില്ലയെന്നുള്ളതല്ല എന്നാലും കുറച്ചും കൂടി നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് പത്രങ്ങളിൽ കാണുന്ന വാര്ത്തകളാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്